വലിയ അതിൻ്റെ എന്താ പറയുക സ്ക്രൂവും മറ്റ് വല്യ ടൈപ്പ് ഇതായിരുന്നു അപ്പോൾ അത് ഒന്ന് എന്താ പറയുക ലൂസാക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വന്ന് അപ്പോൾ ആ സമയത്ത് എല്ലാ പ്രാവശ്യവും നമ്മള് ഈ പ്ലമ്പറെ വിളിക്കുക പറയണത് നഷ്ട്ടമായത് കൊണ്ട് ഒരെണ്ണം ഓർഡറ് ചെയ്ത് വരുത്തി നല്ല കമ്പനിയുടെ ഒരു സാധനം തന്നെയാണ് ഓർഡറ് ചെയ്തത് അതിലിപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച അത്ര പൈസ അല്ലങ്കിൽ സിസ്കൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ശരി എഴുന്നൂറ്റമ്പത് തൊള്ളായിരം റേഞ്ച് ആയിരുന്നു ആ അപ്പോൾ വന്നത് തൊള്ളായിരത്തി സംതിങ് ആയിരുന്നു മറ്റ് ചാർജും എല്ലാം കൂടെ കൂടീട്ട് പിന്നെ സംഭവം വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അത് അൺപാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ചെറിയ പണി കിട്ടി ഇപ്പോൾ പൈപ്പിൻ്റെ ഒരു എൻഡ് പൊട്ടി അപ്പോൾ ആ പൈപ്പ് മാറ്റാൻ വേണ്ടീട്ട് അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുവായിരുന്നു അപ്പ അത് വാ അതില് ആ പൈപ്പിൻ്റെ ബോൾട്ടിലിട്ട് തിരിച്ച് രണ്ട് തിരി തിരിക്കുമ്പഴേക്കും ഇതിൻ്റെ പല്ല് പൊട്ടി പോയി പല്ല് ഒരു സൈഡിത്തെ പൊട്ടി കാസ്റ്റ് അയണിൻ്റെ മെറ്റീരിയൽ ആണെന്നക്കേണ് പറഞ്ഞിണ്ടായിരുന്നേ പക്ഷെ ഇത് തീരെ ഉറപ്പില്ലാത്ത ഒരു മെറ്റീരിയൽ ആയിരുന്നു അപ്പ സാധനം പൊട്ടി എന്നിട്ട് എനിക്കത് പണിയും പകുതിലായി ഇത് ഉപയോഗിക്കാനും പറ്റാണ്ട് എന്നിട്ടത് ഇപ്പോൾ റിട്ടേൺ ആക്കി ഞാനത്